ആ പറഞ്ഞോളൂ ആ അതെ ആ ഒക്കെ ഒക്കെ ഏതു സ്റ്റാൻഡേർഡിലേക്കാണ് രണ്ടുപേരുണ്ടല്ലേ ആ ഓക്കേ നമുക്കിപ്പോൾ ഒരാൾക്ക് അഡ്മിഷനു വേണ്ടിയിട്ട് ആയിരത്തിയെണ്ണൂറ് രൂപയാണ് നമ്മള് സ്കൂളിൽ ഫീ ആയിട്ടുവരുന്നത് പിന്നേ നമുക്ക് പി ടി എ ഫണ്ടൊക്കെ അഡിഷണൽ വേറെയാണ് വരുന്നത് പി ടി എ ഫണ്ട് ഇരുന്നൂറു രൂപ ഒരു കുട്ടിക്ക് വരുന്നുണ്ട് പിന്നേ നമുക്ക് വേറെയെന്നു പറയുമ്പോൾ ഇപ്പോൾ യൂണിഫോമിന്റെ ഫണ്ടൊക്കെ നിങ്ങള് പുറത്ത് നിന്ന് ചെയ്യേണ്ടിവരും യൂണിഫോമൊക്കെ നമ്മള് ഇവിടുന്ന് ഇതാക്കുന്നില്ല പ്രൊവൈഡ് ചെയ്യുന്നില്ല ബസ് സർവീസൊക്കെ ഉണ്ട് നമുക്ക് സ്കൂൾ ബസുണ്ട് അതിനു നമുക്ക് മുന്നൂറുരൂപ വെച്ചാണ് മന്ത്ലി പേയ്മെൻ്റെ വരുന്നത് അതിപ്പോൾ നമുക്കിപ്പോൾ രാവിലെ പത്തുമണിക്കാണ് കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുക അപ്പോൾ ഒരു നിങ്ങളുടെ സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് മാനന്തവാടിയിൽ തന്നെ മാനന്തവാടി എവിടെയാണ് വരുന്നത് അമ്പുകുത്തിയില് അവിടേക്ക് നമുക്കൊരു എട്ടേമുക്കാലൊക്കെ ആകുമ്പോഴാണ് ബസ് വരുന്നത് സ്കൂൾ ബസ് ആ ടൈമില് നിങ്ങള് കുട്ടികളെ റെഡിയാക്കി വിടുവാണെങ്കിൽ സ്കൂൾ ബസിനു നമുക്ക് കയറ്റി കൊണ്ടുവരാവുന്നതാണ് ഫുഡ് നമുക്ക് രാവിലെ പത്ത് മണിക്ക് ഒരു ബ്രേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുത്തുവിടുന്നു ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ആയിട്ട് ടൈം ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് സാധാരണ നമ്മളുടെ സാധാരണ ഒരു മണിക്ക് ഫുഡ് കൊടുക്കാൻ ഇതാക്കുന്നത് ഫുഡ് നമ്മൾ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നതായിരിക്കും ബെറ്റർ പിന്നേ വൈകുന്നേരം നാലുമണിയാകുമ്പോൾ ഒരു ഇന്റർവെല്ലും കൂടെ കൊടുക്കുന്നുണ്ട് ആ അത്രയുമാണ് പിന്നേ നാലേമുക്കാലാകുമ്പോൾ നമ്മള് സ്കൂൾ വിടും ആ വെള്ളിയാഴ്ച വരെയുണ്ട് നമുക്ക് ചിലദിവസങ്ങളില് ചിലപ്പോൾ ശനിയാഴ്ച ക്ലാസ്സുണ്ടാവും പോഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ അഡിഷണൽ ക്ലാസ് വെക്കേണ്ടിവരും അത് അങ്ങനെന്തെങ്കിലുമുണ്ടെങ്കിൽ നമ്മള് ഗ്രൂപ്പില് വാട്സപ്പില് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതായിരിക്കും ആ നിങ്ങള് എപ്പത്തേക്കാണ് സ്കൂളിലേക്കെത്തുന്നതെന്നു വല്ലതും പറയാൻ കഴിയുവോ ബുധനാഴ്ചയാകുമ്പോത്തേക്കും എത്തുകയുള്ളു അല്ലേ അപ്പോൾ രണ്ടുകുട്ടികൾക്കുള്ള അഡ്മിഷൻ വേണം ആ ഒക്കെ ഒക്കെ അപ്പോൾ നിങ്ങളെന്തായാലും ബുധനാഴ്ച വരാമെന്നല്ലെ പറഞ്ഞത് അപ്പോഴത്തേക്കും നമ്മള് ഫോമൊക്കെ എന്തായാലും സെറ്റ് ചെയ്തുവെച്ചേക്കാം അപ്പോൾ നിങ്ങള് ബുധനാഴ്ച എത്തിയാൽ മതി നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നേരിട്ട് സംസാരിക്കാം ബാക്കി കാര്യങ്ങള് ഐഡന്റിറ്റി കാർഡൊക്കെ നമ്മള് വൺ മന്തിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യും ആ അതിനുവേണ്ടി കുട്ടികളുടെ ഒരു ഫോട്ടോയും അഡ്രസും കൂടി എഴുതിയൊരു ഇതാക്കി ഫില്ല് ചെയ്തുതന്നാൽ മതി നമ്മളത് കറക്റ്റ് ചെയ്തോളാം ആയിക്കോട്ടെ നിങ്ങളെന്തായാലും എത്തുമ്പോൾ ബാക്കി നമുക്ക് നേരിട്ടുസംസാരിക്കാം ഓക്കെ എന്നാൽ